രണ്ടുവർഷം മുന്നേ ഞാനൊരു ഐ ടി ഫേമില് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഏതാണ്ട് ഒര് അഞ്ചുവർഷത്തോളം ഞാൻ ആ ഐ ടി ഫേമിൽ ഉണ്ടായിരുന്നു വളരെ നല്ല രീതിയില് എന്റെ എക്സലൻസ് ഒക്കെ കാഴ്ച വെച്ചിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളെ ഫാമിലി എന്റെ ഒരു റിലേറ്റീവുമായിട്ട് ഭയങ്കര വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ അവര് പിന്നീട് ഞങ്ങളുമായിട്ട് ഒരു കോൺടാക്ടും കാര്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല അതിന് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കമ്പനിയിൽ ജോയിൻ ചെയ്ത് ഒരു രണ്ടുവർഷം കഴിഞ്ഞതിനു ശേഷം എന്റെ സെയിം കൊളീഗ് ആയിട്ട് എന്റെ റിലേറ്റീവ് വന്നിട്ട് ഉണ്ടായിരുന്നു കൊളീഗ് ആയിട്ട് റിലേറ്റീവ് ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു വള എന്റെ അടുത്ത സീറ്റിൽ തന്നെയായിരുന്നു അദ്ദേഹവും ക്യാബിൻ ഉണ്ടായിരുന്നത് അപ്പോൾ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം നമ്മളെ മുന്നേ വൈര ഫാമിലി തമ്മിലുള്ള പ്രശ്നമാണെങ്കിലും ഫാമിലീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെയും ഞാൻ കുറച്ച് കുറ്റം പറഞ്ഞിരുന്നു അവരുടെ മുന്നിൽ വച്ച് തന്നെ അവരെ ഭയങ്കര ഡൌൺ ചെയ്യുന്ന രീതിയിലുള്ള വാക്കുകൾ എല്ലാം പറഞ്ഞിരുന്നു അപ്പോൾ അതിനുശേഷം എന്നും അവരെ കാണേണ്ട ഒരു അവസ്ഥ വരികയാണ് ആ ഐ ടി ഫേമിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ നെക്സ്റ്റ് ക്യാബിനിൽ തന്നെയായിരുന്നു അവരുടെ സീറ്റും ഉണ്ടായിരുന്നത് അപ്പോൾ ഡെയിലി രാവിലെ വരുമ്പോൾ അവരെ കാണേണ്ട അവരെ ഫെയ്സ് ചെയ്യേണ്ട അവസ്ഥ വരികയാണ് ഇത് എന്റേതുപോലെത്തന്നെ അവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും അവർക്കും എന്നെ ഫെയ്സ് ചെയ്യേണ്ടിവരും ഞങ്ങൾ അതിന് ഒരുപാട് കാലത്തോളം ഞങ്ങൾ സംസാരിച്ചതെ ഉണ്ടായിരുന്നില്ല കാണുമ്പോഴെല്ലാം അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്ന് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു പക്ഷേ പിന്നീട് എന്താ ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മറ്റുള്ളവരുമായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കുമ്പോൾ അവരെ ഒരിക്കലും ഇനി ഫേസ് ചെയ്യേണ്ടി വരില്ല എന്നൊരു അവസ്ഥ അവസ്ഥയിലാവരുത് നമ്മൾ ഇരിക്കണത് കാരണം അവരെ ഫേസ് ചെയ്യേണ്ട അവസ്ഥ വരും പക്ഷേ അപ്പോഴൊക്കെ നമ്മള് സ്ട്രോങ്ങ് ആയി നിന്ന് അവര് നമ്മളെ വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പൊറുത്തു കൊടുക്കുന്ന രീതിയിൽ ആയിക്കൊണ്ട് നമ്മള് നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്തു കൊണ്ട് നിൽക്കാനാണ് നിൽക്കാനാണ് ഞാനിപ്പോൾ പഠിച്ചിരിക്കുന്നത് കാരണം അങ്ങനെ ഒരു എക്സ്പീരിയൻസിനു ശേഷം ഒരുപാട് കാലത്തോളം അഞ്ചു വർഷം ഞാൻ അവിടെ ജോലി ചെയ്തിരുന്നു അതിലെ രണ്ടു വർഷത്തിനു ശേഷമാണ് എന്റെ കൊളീഗ് ആയിട്ട് റിലേറ്റീവ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതിനുശേഷം ഒരു രണ്ട് മൂന്ന് വർഷത്തോളം എനിക്ക് അവരെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു പക്ഷേ പിന്നീട് അതൊന്ന് യൂസ്ട് ആയി അതങ്ങനെയാണല്ലോ ഹ്യൂമണിൻ്റെ നേച്ചർ അങ്ങനെയാണല്ലോ ഒരു അവസ്ഥയെ അവര് കുറെക്കാലം അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവര് യൂഷ്വലി അതിലേക്ക് അല്ലെങ്കിൽ ഇവൻചുലി അതിലേക്ക് അവര് അത് യൂസ്ഡ് ആയിട്ട് മാറുമല്ലോ അങ്ങനെയാണ് ഞാനും പിന്നെയാ ഇറിറ്റേഷനിൽ നിന്ന് കാം ആയി പിന്നെ പിന്നെ ഓർത്തു ഫാമിലിയാണ് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ഒരേ രക്തബന്ധങ്ങളാണ് അപ്പോൾ ഇങ്ങനെ ഒര് പ്രശ്നം മുന്നോട്ടു കൊണ്ടുപോകുന്നതില് അർത്ഥമില്ലയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആദ്യം ഞാൻ തന്നെ ചെന്ന് സംസാരിച്ചു ഞാൻ തന്നെ ചെന്ന് സംസാരിച്ച് ഒരു ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടായാലും പിന്നീട് തിരിച്ചും ആളിങ്ങോട്ട് സംസാരിക്കാൻ വന്നു ആ പിന്നെ പിന്നെ അതങ്ങനെ ശരിയായി ഇങ്ങനെയാണ് ഒരു മാറ്ററിനെ ഡീൽ ചെയ്യേണ്ടത് എന്നാണ് എന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അഭിപ്രായം